അയില മീൻ ഒരു പത്ത് കിലോ വേണം

ആ കല്യാണം എന്തോ ആകട്ടെ നിങ്ങൾക്ക് കച്ചവടം നടന്നാൽ പോരേ ഒരു പരിപാടി ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത് നല്ല മീൻ ആണോ എന്നുള്ള മീൻ എന്ന് എന്ന് ഏത് ദിവസം ഉള്ളതാണെന്ന് അറിയാൻ പറ്റുമോ നല്ല ആ എന്നാൽ നല്ല മീൻ ആണെങ്കിൽ ഒരു കിലോ മീൻ മതി നല്ല മീൻ ആയതുകൊണ്ടാണ് ഒരു കിലോ മതി എന്ന് പറഞ്ഞത് അപ്പം ഒരു കാര്യം ചെയ്യുമോ ഞങ്ങൾ പത്ത് കിലോ മേടിച്ചാൽ നിങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് വെട്ടി ഒക്കെ തരുമോ ആ എന്നാൽ ആ ആ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കുമോ ഡിമാൻഡ് കൂടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആൾക്കാരില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ പത്ത് കിലോ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ ഇന്നത്തെ കച്ചവടം നടന്നില്ലേ അതുകൊണ്ട് പറയുവാണ് എന്ന് പറയുന്നത് എന്താണ് പത്ത് കിലോ മീനിനിപ്പം എന്ത് വിലയാണ് അപ്പോൾ അത് നിങ്ങൾ നോക്ക് ഭയങ്കരമായ വിലയാണ് ചോദിക്കുന്നത് ആ മീൻ കൊള്ളാമോ കുഴപ്പം ഒന്നും ഇല്ലല്ലോ ആ ഇന്ന് കൊണ്ടുവരുമ്പം കൊള്ളത്തിലെങ്കിൽ തിരിച്ചുതന്നാൽ നിങ്ങൾ എടുക്കുമോ എടുക്കില്ലല്ലോ ആണോ വിശ്വസിക്കാമോ ആണോ കച്ചവടം നടത്താൻ വേണ്ടി കച്ചവടക്കാർ എന്ത് വേണമെങ്കിലും പറയുമല്ലോ

ആണോ ആ ആ ആ ആ അതിന് വേറെ മീൻ വല്ലതും ഉണ്ടോ കൊഞ്ച് കിലോ എത്ര വില മുന്നൂറ്റമ്പത് രൂപയേ ഉള്ളോ വില അറിയാതെ തെറ്റ് പറ്റി പോയതാണോ മുന്നൂറ്റമ്പത് രൂപ പറയുന്നത് ആ

ആ തോനെ വേണ്ട അത് ഒരു കിലോ മതി

ആ നോക്കട്ടെ നോക്കട്ടെ സാനം കൊണ്ടുവന്നിട്ടേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെ യ്ത് തരാം ഫംഗ്ഷൻ ഞങ്ങൾക്ക് നാളെയാണ്

ആ അതൊക്കെ ഞങ്ങൾ ചൂസ് ചെയ്തോളാം അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഇല്ല മി നാളെ എന്ന് പറയുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഫംഗ്ഷൻ അപ്പോൾ രാത്രി വയ്ക്കണമല്ലോ അതുകൊണ്ടാണ് ഇന്ന് കൊണ്ടുവരാൻ പറയുന്നത് ആ മതി മതി വൈകുന്നേരത്തേക്ക് എത്തിച്ചാൽ മതി

അന്ധാമുക്കത്ത് കൊണ്ടുവരണം കേട്ടോ

ആ ആ കറക്റ്റ് ശരി ശരി ശരി